അത് എനിക്കു മലയാളഭാഷയിൽ നിന്നും അല്ലാതെ മലയാളഭാഷയിലേക്കു തിരിച്ചും വിവർത്തനം ചെയ്യാൻ വേണ്ടി പല വർക്കുകള് പ്രവൃത്തികള് എന്നെ ആളുകള് വന്നു സമീപിക്കാറുണ്ട് ഞാനങ്ങനെ ചെയ്തു കൊടുക്കാറുമുണ്ടായിരുന്നു രണ്ടു മൂന്നു വർഷങ്ങളായിട്ട് എന്നെ സമീപിക്കുന്നവര് വളരെ വിവിധ ഭാഷകളിൽ നിന്നു മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വിവർത്തനം ചെയ്യാൻ വേണ്ടി വരുന്നവരാണ് അതും പല ദിക്കുകളിൽ നിന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നു വരെ എൻ്റെ സമീപത്തേക്ക് ആളുകൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു അതിന് ഉദാഹരണങ്ങള് പറയുകയാണെങ്കില് പല രീതിയില് പറയാം അഥവാ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നത്തെ വർഷവും ഒക്കെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലപ്പുറത്ത് നിന്നും കോഴിക്കോടു നിന്നും കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്നും വരെ ആളുകൾ എന്നെ സമീപിക്കാറുണ്ട് അവർക്കൊക്കെ അവരുടെ പുസ്തകങ്ങളോ അവരുടെ ലേഖനങ്ങൾ അതല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കൃതികളൊക്കെ മലയാള ഭാഷയിലേക്കു വിവത്തനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ സമീപിക്കാറ് സ്വാഭാവികമായിട്ടും വിവർത്തനം ചെയ്യാൻ വേണ്ടി എനിക്ക് മലയാളം മാത്രം പോരാ അറബി ഇംഗ്ലീഷ് ഉർദു ഭാഷകളൊക്കെ എനിക്കു നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നതുകൊണ്ടു തന്നെയാണ് അവര് എന്നെ അവര് എന്നെ ഏൽപ്പിക്കുന്നത് എന്ന് എനിക്കു പറയാൻ കഴിയും അതുകൊണ്ടുതന്നെ പല രീതിയിലുള്ള ആളുകൾ എന്നെ വിവർത്തനം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുമ്പോൾ ഞാൻ ഒരു നിലയ്ക്കും അതിനു വേണ്ടിയുള്ള തുക ഈടാക്കാറില്ല കാരണം ഇത് എൻ്റെ ഒരു കരിയർ മാത്രമല്ല ഇത് ഒരു സേവനമാണ് ജനസേവനം എന്നു വേണമെങ്കിൽ പറയാം ഈ വിവർത്തനം ചെയ്യുന്നതിലൂടെ പല അറിവുകൾ വിജ്ഞാനങ്ങൾ നമുക്ക് അവർക്കു കൈമാറാൻ കഴിയും അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള വിവർത്തനം ചെയ്തുകൊണ്ടുള്ള അനുഭവം വളരെ എനിക്ക് ആശ്വാസപരവും സന്തോഷവും നൽകുന്നതായിരുന്നു ഏറെക്കുറെ എല്ലാ ആളുകളും എന്നെ വിവർത്തനം ചെയ്യുമ്പോൾ പല രീതിയിലുള്ള ആളുകൾ എന്നെ സമീപിക്കുകയും ചെയ്യുമ്പോള് എനിക്കു വളരെ എന്തെന്നില്ലാത്തൊരു ആഹ്ളാദവും സന്തോഷവും ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെയാണു ഞാന് ഈ ഒരു മേഖല കൈവിടാതെ ഇന്നും നിലകൊണ്ടു പോകുന്നത് എന്നാൽ പല ആളുകളും എന്നെ വിവർത്തനം ചെയ്യാൻ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് അത് എന്നെ അഭിനന്ദിക്കുകയും അതിനു വേണ്ടിയുള്ള പല സജ്ജീകരണങ്ങള് വളരെ സൗജന്യമായിട്ട് തന്നെ എനിക്കു നൽകുകയും ചെയ്തു ഈ ഒരനുഭവം എനിക്കു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ് മലയാള ഭാഷയിൽ നിന്നു മറ്റു ഭാഷകളിലേക്കു വിവർത്തനം ചെയ്യുന്നതു പോലെയല്ല മറ്റു ഭാഷകളിൽ നിന്നു മലയാള ഭാഷയിലേക്കു വിവർത്തനം ചെയ്യുന്നത് മലയാള ഭാഷ തീർത്തും വ്യത്യസ്തവും വളരെ വൈവിധ്യമാര്ന്ന വാക്കുകളും ഒക്കെയുള്ള ഒരു ഭാഷയായതുകൊണ്ടുതന്നെ പല രീതിയിലുള്ള സങ്കല്പങ്ങൾ എനിക്ക് സമീപിക്കേണ്ടി വന്നു അതിലൊന്നാണ് അതിൻ്റെ വാക്ചാതുര്യം ഇതൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ അനുഭവങ്ങളായതുകൊണ്ടാണ് വളരെ നല്ല ഒരനുഭവമായിരുന്നു എനിക്കു വിവർത്തനം ചെയ്യുന്നതിലൂടെ കിട്ടിയത്